ശരീരഭാരം കൂട്ടാന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ശരീരം ശരീരഭാരം കൂട്ടാൻ വേണ്ടിട്ടു നമ്മൾ കൂടുതലായിട്ടും നാട്ടു വൈദ്യങ്ങൾ ഒക്കെയാണ് യൂസ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ കെമിക്കലായിട്ട് കുറെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ നമ്മളിപ്പം ജിമ്മിലോക്കെ പോയിക്കഴിഞ്ഞാൽ പ്രോട്ടീൻ പൗഡർ ആ അങ്ങനെ പലതരം പ്രോട്ടീനുകൾ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് കേടാണ് നമ്മുടെ മസ്സിൽസൊക്കെ ലൂസായി ആ അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഒക്കെ വരും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നാട്ടു വൈദ്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ശരീരം നല്ല രീതിയിൽ നിൽക്കുകയും ചെയ്യും നമുക്ക് വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരൂ ഇല്ല അപ്പോൾ നാട്ടു വൈദ്യങ്ങളാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യേണ്ടത് നാട്ടു വൈദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ലേഹ്യങ്ങളും അരിഷ്ടം ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് കൂട്ടാൻ ഒക്കെയാണ് അവർ ആദ്യം മരുന്ന് തരുക അപ്പോൾ വിശപ്പ് കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ തടിക്ക തന്നെ ചെയ്യും അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ആയിരിക്കും കൂടുതലായിട്ട് അവർ ചെയത് തരിക അപ്പോൾ ലേഹ്യം ഒക്കെ കഴിച്ചാൽ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ഭക്ഷണംന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏത് ഭക്ഷണമായാലും നോൺ വെജ്ജ് ആണെങ്കിലും വെജ്ജാണെങ്കിലും ഏത് രീതിയിലുള്ള ഭക്ഷണാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തടിക്കാൻ പറ്റും പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമ്മൾ വെള്ളം കുടിക്കുക വെള്ളം നല്ലോണ്ണം കഴിക്കുക അങ്ങനെ പല രീതിയിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതിന് അനുസരിച്ച് നമുക്ക് ഇത് വരുന്നതാണ് നമുക്ക് തടിക്കുന്നതാണ്